കൃഷിക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച് കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് വരുന്ന വ്യതിയാനങ്ങളല്ലേ എല്ലാ സമയത്തും എല്ലാം ഒരേപോലെ നടക്കണമെന്നില്ല നമ്മൾ കൃത്യമായി കാലാവസ്ഥ ഇപ്പോൾ എല്ലാ കാലങ്ങളിലും വളരെ കൃത്യമായിട്ട് ഇടവപ്പാതി ലഭിക്കാറുണ്ട് ഇടവപ്പാതി ലഭിക്കാത്തൊരവസ്ഥ ഇപ്പോൾ പല കാലത്തായിട്ട് ഇപ്പോൾ വന്ന് കൊണ്ടിരിക്കുന്നു അതിലേക്കും അല്ലങ്കിൽ ഇപ്പോൾ വളരെ വൈകിയിട്ടാണ് ജൂൺ ജൂലൈ മാസത്തിലാണ് മഴ പെയ്യുന്നൊരവസ്ഥ നമ്മുടെ കൃഷിയെന്ന് പറയുമ്പോൾ കൃഷി കൃത്യമായിട്ട് നമ്മളൊരു ടേമില് ചെയ്യുന്നതാണ് അതിൻ്റെ സമയത്ത് ചെയ്താൽ മാത്രമേ ആ കൃഷിയുടെ കാര്യങ്ങൾ നടന്ന് പോകൂ നമുക്ക് അല്ലാതെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാലാവസ്ഥ വ്യതിയാനം വന്ന് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സമയത്ത് കൃഷി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കൃഷിയിൽ നിന്നുണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ കുറവാകുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് അതിന് വേണ്ടീട്ട് നമ്മൾ ഈ കാലാവസ്ഥ നമ്മൾ കാലവർഷത്തെ ചതിച്ചു കഴിഞ്ഞാൽ കൃഷിക്കാരനെ ചതിച്ചൂന്ന് പറയില്ലേ അത് കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പേല് ചോറ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ മെയ് മേടത്തിൽ മീനത്തിൽ മഴ പെയ്താൽ മീനരി ഇടാൻ പോലും ഉണ്ടാകില്ല അങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് വരുന്നത് പഴയൊരു പഴഞ്ചൊല്ലിൻ്റെ ഭാഗമാണങ്കിലും അത് വളരെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത് തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം കൃഷിക്കാർ ഏറ്റവും കൂടുതൽ നിരാശപ്പെട്ടു കൊണ്ടിരിക്കുന്നതും ഏകാഗ്രമായി കൃഷി മൊത്തത്തിലേ നമുക്ക് നഷ്ടത്തിലേക്ക് പോകുന്നൊരാവസ്ഥയാണ് ഉണ്ടാകുന്നത് അതും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ കാലാവസ്ഥയിലാണ് കാലാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥക്ക് വരുന്ന മാറ്റങ്ങൾ മഴയെ മഴയില്ലാത്ത കാലാവസ്ഥ മഴയില്ലാത്ത കാലാവസ്ഥ അങ്ങനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് വെള്ളപ്പൊക്കം അതൊക്കെ നെൽകൃഷിയെ അതിൽ തന്നെ നമ്മൾ നെൽകൃഷി നടത്തി കഴിഞ്ഞിട്ട് നടത്തി കഴിഞ്ഞ കാലഘട്ടത്തിൽ നടത്തി കഴിഞ്ഞു നടത്തി കഴിഞ്ഞ നെൽകൃഷി നമുക്ക് കൊയ്യാൻ അവസരം കിട്ടും ഒന്നുങ്കിൽ വളരെ വെള്ളപ്പൊക്കൊമുള്ള അവസ്ഥയുണ്ടാവും അത് കണ്ടത്തിൽ കണ്ടത്തിൽ നമ്മൾ കണ്ടത്തിൽ ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ വെള്ളപ്പൊക്കം നമുക്കധികം ബാധിക്കാറ് കൂടുതൽ മഴ വന്ന് വെള്ളപ്പൊക്കം നെൽക്കൃഷിയെ ബാധിക്കും അതുപോലെ തന്നെ നെൽക്കൃഷിയെ ബാധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആഴ്ചയിൽ രണ്ട് കുറേ നമ്മൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച്ച വെള്ളം നിൽക്കും നെൽക്കൃഷി വെള്ളത്തിൽ അലിഞ്ഞ് പോകുന്നൊരു അവസ്ഥയുണ്ടാവും വെള്ളപ്പൊക്കം കാരണം വെള്ളപ്പൊക്കം കാരണം പിന്നീട് ആ വിളവ് മൊത്തം നശിച്ച് പോകുന്നരവസ്ഥ അതേപോലെ നമുക്ക് വരുന്ന രണ്ടാമത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ വരൾച്ച തീർത്തും അതും നമുക്ക് നിർണ്ണായകമായി ഭയങ്കര വ്യതിയാനമുണ്ടാക്കുന്ന കൃഷിക്കാർക്ക് അനുഭവപ്പെടുന്ന ഒരു ഇതാണ് വരൾച്ച വരൾച്ചയെന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ കാർഷിക വിളകൾ അതേപോലെ ദീർഘ വിളകൾക്കും കാർഷിക വിളകളിൽ വാഴ വാഴകൾ വാഴ മറ്റ് പച്ചക്കറി കാര്യങ്ങൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ പറമ്പിലാണ് നടുന്നത് കണ്ടത്തിലല്ല വയലിലല്ല പറമ്പിൽ നട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ വരൾച്ചയെ ഒരുപാട് കാലമായിട്ട് വരൾച്ച തുടർന്ന് കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ വെള്ളത്തിൻ്റെ സർഫസ് ലെവല് ഒരുപാട് താണു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് അപ്പം ആ അവസ്ഥ നമുക്ക് മാറ്റിയടുക്കണമെന്ന് വരൾച്ച മാറ്റിയെടുക്കണന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്ന് ജലസംരക്ഷണമായി ബന്ധപ്പെട്ടിട്ട് നെൽക്കൃഷി കാര്യങ്ങൾ നടത്തണമെന്ന് തന്നെയാണ് പറഞ്ഞ് വരുന്നത് മാറ്റങ്ങൾ കർഷകർക്ക് തടസ്സങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അത് നെൽക്കൃഷി നമ്മൾ ഒരുപാട് നെൽക്കൃഷി നടത്താത്തത് കൊണ്ട് ആള് വയലുകളിലും തരിശ്ശിടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം കെട്ടി നിർത്താൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ വന്നു കൊണ്ടിരിക്കുന്നത് മുൻകാലഘട്ടങ്ങളിൽ നമ്മൾ എല്ലാ വയലുകളും കൃഷി യോഗ്യമാക്കുന്നതുകൊണ്ട് ഈ തരിശ്ശില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളം സംഭരിച്ച് നിർത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട് മഴക്കാലമാകുമ്പോൾ സംഭരിച്ച് നിർത്താനും വേനൽക്കാലമാകുമ്പോൾ അത് വരൾച്ച തടയാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ നഷ്ടങ്ങൾ നമ്മൾക്ക് പരിഹരിക്കണമെങ്കിൽ ഇതിനു തടസ്സങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ രീതിയിലേക്ക് തടയണ കാര്യങ്ങൾ കൊണ്ട് ചെയ്യേണ്ടതാണ് അത് മുൻകയ്യെടുത്ത് ചെയ്യുന്നില്ല എന്നുള്ള രീതിയാണ് എന്താണ് അത് ചെയ്യുന്ന മാത്രല്ല കൃഷി മുന്നിട്ട് ഇറങ്ങുന്നില്ല എല്ലാം ഈ നഷ്ടത്തിൻ്റെ കച്ചവടമായത് കൊണ്ട് കൃഷി നെൽക്കൃഷിയെന്നുള്ള കാര്യത്തിൽ നിന്ന് എല്ലാവരും തല ഊരും മറ്റ് കൃഷികളായാലും അങ്ങനെ തന്നെ മറ്റ് നാണ്യവിളകളും കർഷ കാർഷികവിളകളായാലും നാണ്യ വിളകളായാലും മറ്റ് വിളകളായാലും എല്ലാ വിളകളും നഷ്ട്ടത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ കൊണ്ട് ആൾക്കാർ കൃഷിയിൽ നിന്ന് വിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് കൃഷിയുടെ വരൾച്ച കാലം വരുന്നത് ഒരു കാലത്ത് വെള്ളപ്പൊക്കം കൊണ്ട് നശിച്ച് ഭൂമി നശിച്ച് പോയത് രണ്ടാമത് വരൾച്ചയിൽ നശിച്ച് നശിച്ച് പോകുന്ന കൊണ്ടും ശൈത്യകാലം കാലത്തിൻ്റെ അവസ്ഥ കൊണ്ട് അസുഖങ്ങൾ കാര്യങ്ങൾ വരും ചില സമയത്ത് മഴ മഴ നമ്മൾ ചില കാര്യങ്ങൾ മഴ നമ്മുടെ വിളവെടുക്കുന്ന സമയത്ത് വരുന്ന മഴ നെൽക്കൃഷിയും കാര്യങ്ങളും ബാധിക്കുന്ന മഴ പിന്നെ കാറ്റാണ് കാറ്റ് വരുമ്പോൾ തെങ്ങ് കവുങ്ങ് കവുങ്ങ് വാഴ വാഴ കൃഷി വാഴക്കൃഷിയാണ് ഏറ്റവും കൂടുതൽ നശിച്ച് പോകുന്നത് കർഷ കാറ്റ് ചുഴലിക്കാറ്റ് കർഷകനത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും പിന്നെ അസുഖങ്ങളും മഞ്ഞ് വീഴ്ചയിൽ വരുന്ന അസുഖങ്ങളും കാര്യങ്ങളുണ്ട് ചുഴലിക്കാറ്റ് ശൈത്യ കാല കാലത്ത് ഉള്ളൊരു പ്രശ്നമാണ് ചുഴലിക്കാറ്റെന്ന് പറഞ്ഞാൽ കർഷകന് ഇത് എല്ലാ വിളകളും കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കയ്യിലേക്ക് വരുന്ന ഒരു കാലത്താണ് ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് കാറ്റ് ഒരു ദിവസത്തെ കാറ്റിലാണ് പത്ത് മാസം ആയി കഴിഞ്ഞ വാഴ കുലച്ച് കഴിയുന്ന നേന്ത്ര വാഴകളും കാര്യങ്ങളും നശിച്ച് പോകുന്നത് അതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ വാഴക്ക് തണ്ടിട്ട് കെട്ടല് മറ്റ് കാര്യങ്ങൾ അവലംബിക്കാമെന്നല്ലാതെ ശാശ്വതമായിട്ട് ഇതിന് കാറ്റിന് ഒരു പരിഹാരം കാണാൻ പറ്റിയില്ല ഇതുവരെ അത് നഷ്ടപെടുന്നതിന് ഇൻഷുറ് ചെയ്യുന്നുണ്ട് എന്നാലും ഇത്തരത്തിൽ നഷ്ടങ്ങൾ നമുക്ക് തട തട തടസ്സങ്ങളെയും കൈകാര്യം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായ രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഇൻഷുറൻസാണേ ചെറിയ തുക കിട്ടുമായിരിക്കും എന്നാലും കർഷകർ രക്ഷപ്പെടാനുള്ള രീതികൾ വരുന്നില്ല വെള്ളപ്പൊക്കം ഒരു ഭാഗത്ത് നിന്ന് ഭീഷണിയാകുമ്പോൾ തന്നെ തന്നെ മറുഭാഗത്ത് നിന്ന് വരൾച്ച നമുക്ക് ഭീഷണിപ്പെട്ട് കൊണ്ടിരിക്കുന്നു ഒരു കാലത്ത് വെള്ളപ്പൊക്കത്തിൽ നശിച്ച് രണ്ടാമത്തെ കാലത്ത് വരൾച്ചയിലേക്ക് നഷ്ടം സംഭവിച്ച് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇതിന് രണ്ടിനും പരിഹാരം എന്ന രീതീൽ ഒരു ഒരു രീതിൽ പരിഹാരം വ്യതിയാനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഒരു കാലത്ത് വെള്ളപ്പൊക്കം നശിപ്പിക്കണം മറുകാലത്തത് വരൾച്ചയുമായെത്തിക്കും അത് രണ്ടുമില്ലങ്കിലും അതിൻ്റെ രണ്ടിലും കൂടി ചുഴലിക്കാറ്റിലും മറ്റ് കാര്യങ്ങൾ ഇന്ന് വന്ന് കൊണ്ട് കർഷകരുടെ ഈ ഒരവസ്ഥയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു എപ്പോഴും കർഷകർക്ക് കർഷക ക്ഷേമ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടത്തുന്നുണ്ടെങ്കിലും അവർ വളരെ കാര്യമായി വിഷമം പിടിച്ചൊരാവസ്ഥയിലാണ് ഈ ചുഴലിക്കാറ്റ് വന്ന് കഴിഞ്ഞാൽ കർഷകർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ പല കർഷകരും ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് ഈ ഒരു രീതിയിലേക്ക് വന്ന് കൊണ്ടിരിക്കുന്നത് കാറ്റടീന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിഹാര മാർഗമെന്ന് വച്ച് കഴിഞ്ഞാൽ വരൾച്ചയിൽ നിന്ന് നമുക്കൊരു വിധം നഷ്ടങ്ങളെയും തടസ്സങ്ങളെയും കൈകാര്യം ചെയ്യാൻ വേണ്ടി വരൾച്ചക്ക് ബണ്ട് നിർമ്മിക്കുക പിന്നീട് നെൽക്കൃഷി ആദ്യമായിട്ട് നെൽക്കൃഷി സംരക്ഷിക്കാൻ തരിശ് ഭൂമികളൊഴിവാക്കി കൊണ്ട് നെൽക്കൃഷി സംരക്ഷണം നടത്തി കഴിഞ്ഞാലൊരുവിധം വരൾച്ച നമുക്ക് തടയൻ പറ്റുന്നൊരു രീതീലാണ് വരുന്നത് ഈ ഒരു കാലത്ത് നെൽക്കൃഷി സംരക്ഷിക്കണമെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം മൊത്തം തോടിലൂടെ പോയി കടലിലേക്ക് എത്തുന്നൊരവസ്ഥ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ നമ്മുടെ നെൽക്കൃഷി സംരക്ഷിക്കേണ്ട ഒരു കാര്യവും അവിടെ നടന്ന് പോകുന്നില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് ആ നെൽക്കൃഷി ഉണ്ടെങ്കിൽ വയല് നന്നാക്കുമ്പോൾ ആ വെള്ളം കെട്ടി നിൽക്കും ആ മൂന്ന് മാസം കാലം വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ആറ് മാസക്കാലം ഒമ്പത് മാസക്കാലം വെള്ളം മൂന്ന് ആറ് ഒമ്പത് ആ മാസക്കാലത്തോളം വെള്ളം ഊർന്ന് പോകാതെ നമ്മുടെ വയലിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് നമുക്കെന്ന് പറഞ്ഞാൽ ഈ ജലം സംരക്ഷിക്കുന്നത് കൊണ്ട് അവിടെ നീരുറവകൾ ഉണ്ടാക്കാൻ പറ്റും അടുത്ത കിണറുകളിൽ വിളകളിടാം അല്ലങ്കിൽ കരക്കൃഷിക്ക് മറ്റ് കാര്യങ്ങൾക്ക് തന്നെ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് ഇത് വരൾച്ച വരൾച്ച വളരെ ബാധിക്കുന്നൊരു പ്രശ്നമാണ് ഉണ്ടാകുന്നത് കടുത്ത ശൈത്യം വരുന്നുണ്ട് ഈ പൊറ പുറത്തുനിന്ന് പറഞ്ഞ നെൽക്കൃഷീടെ നെൽക്കൃഷി കൃത്യമായി ചെയ്യാതിരിക്കുമ്പോൾ ഈ വെള്ളം മൊത്തം ഊർന്ന് ചെന്ന് കടലിലേക്ക് ഒഴുകി പോകുന്നൊരാവസ്ഥയാണ് നെൽക്കൃഷി ചെയ്യുമ്പോ ആ വെള്ളം കെട്ടി ബണ്ട് കെട്ടി നിർത്തിയ കൊണ്ട് നമുക്ക് ഒരുവിധം പരിഹാരങ്ങൾ കാണാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് ആ ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ നെൽക്കൃഷി ചെയ്യാത്ത കൊണ്ട് അതാരും കെട്ടി നിർത്താൻ പോകാത്ത കൊണ്ടും പിന്നീട് കരക്കൃഷി ചെയ്യുന്ന സമയത്ത് ആദ്യം വെള്ളപ്പൊക്കം ഉണ്ടാകും രണ്ടാമത് കരക്കൃഷി ചെയ്യുന്ന സമയത്ത് ഈ നെൽ നെൽ മൊത്തം കരക്കൃഷി ചെയ്യുന്ന സമയത്ത് ഈ വെള്ളം മൊത്തം കരകൃഷി ഉപയോഗിക്കുന്ന സമയത്ത് വളരെ വരൾച്ച നമുക്കനുഭവപ്പെടുന്ന രീതിയുണ്ടാകുന്നു ഈ വരൾച്ചയെന്ന് പറഞ്ഞ വരൾച്ച ഇപ്പോൾ ബോർ വെല്ല് കാര്യങ്ങൾ വന്നതുകൊണ്ട് വളരെ താഴേല് സർഫസ് ലെവല് ഒരുപാട് താണ് പോകുന്നുണ്ട് കിണറുകളിലെ വെള്ളങ്ങളെല്ലാം വളരെ കുറഞ്ഞ് കൊണ്ട് വളർച്ചയുടെ തോത് കൂടീട്ടുണ്ട് ഇപ്പോൾ ബോർ വെല്ലിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നതു കൊണ്ടും ബോറിലെ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ടൊരവസ്ഥയാണ് പലപ്പോഴും കൃഷിക്കാർക്ക് കൃഷിക്കാരെ സംബന്ധിച്ചോളം ബോറിലെ വെള്ളം ഉപയോഗിച്ച് കൊണ്ട് അങ്ങനെ ഒരുപാട് കൃഷി നടത്താൻ കാര്യങ്ങളും പറ്റാത്തൊരവസ്ഥയാണുള്ളത് മറ്റ് ആവശ്യത്തിനും മറ്റും കാര്യത്തിനും ഈ ബോറിലെ വെള്ളം അധികം ഉപയോഗിച്ചത് കൊണ്ടും മറ്റും നമ്മുടെ ഈ വരൾച്ച സമയത്ത് ബോറിലെ വെള്ളത്തെ ആശ്രയിക്കുന്നത് കൊണ്ട് വളരെ സംഭവമാണുണ്ടാകുന്നത് ഇത് മാറ്റിയെടുക്കണമെങ്കിൽ എന്തെങ്കിലും നമ്മൾ കൃഷിയെ സംരക്ഷിക്കേണ്ടിയുണ്ട് കൃഷിയെ സംരക്ഷിച്ച് ഈ വ്യതിയാനങ്ങൾ വ്യതിയാനങ്ങൾ മാറ്റം വരുമ്പോൾ എന്ത് തന്നെ ആയാലും നമുക്കത് മോശമായ രീതിയിലേക്കാണ് കണ്ട് വരുന്നത് ചില മാറ്റം വരുത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത് പല കാലവർഷത്തിൻ്റെ ഈ ഒരു പോരായ് ചില ഇതും മറ്റു കാര്യങ്ങളും കൃഷിയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു കാലം ചുഴലിക്കാറ്റ് വെള്ളപ്പൊക്കം വരൾച്ച ഈ ഒരവസ്ഥ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല നമുക്ക് മാറികിട്ടേണ്ട ഒരവസ്ഥയാണ് അതിന് വേണ്ട പരിഹാരങ്ങളും നമ്മൾ കണ്ടത്തേണ്ടതുണ്ട് ഉണ്ട് എന്നാൽ പറയാനുള്ളത് അതുകൊണ്ട് അതിന് വേണ്ട നഷ്ടങ്ങൾ തടസ്സങ്ങളും കൈകാര്യം ചെയ്യണം നഷ്ടങ്ങളും തടസ്സങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന് പറയ് ഒരുപാട് ഉണ്ട് എന്ന് പറയാനുണ്ട്